അങ്ങനെ പിന്നെ യാത്ര പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറേ സ്വന്തം വണ്ടിയെടുത്ത് പോകുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് സേഫ്റ്റിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പിന്നെ ട്രാ നമുക്ക് സ്വന്തം വണ്ടിയെടുത്തു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റെടുത്ത് നമുക്ക് വല്ല സ്വകാര്യ ചെയ്യാനോ അതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ആവശ്യം നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല ചെറിയ ചെറിയ ഹോട്ടലിലേക്ക് പിന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ബസ് യാത്രയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ വിചാരിച്ചത്ര ടൈമിന് അവിടെ എത്താൻ വേണ്ടിയിട്ട് പറ്റില്ല നല്ല ഫുള്ള് റഷ് ആയിരിക്കും നമുക്ക് ചെറിയ വണ്ടിയെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റഷ്ഷില്ലാണ്ട് എത്രയും പെട്ടെന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടു പറ്റും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് ഇതെല്ലാം അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ നമ്മൾ ലോഡ്ജിൽ റൂമെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ നല്ല ലോഡ്ജിൽ സ്വ ഒരു സ്വകാര്യത ഉണ്ടാകുകയില്ല വൃത്തിയുണ്ടാകില്ല വൃത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതെല്ലാമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോരോ ഓരോ ഓരോരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ടു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഫാമിലി ആയി പോകുമ്പോള് തന്നെ നമ്മൾ ഒരു ലോഡ്ജിൽ റൂം എടുത്താൽ തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് അവിടെ ക്യാമറ ക്യാമറ ക്യാമറ ഫിറ്റ് ക്യാമറ ഉണ്ടാകും അതും കൂടി ശ്രദ്ധിക്കണം പിന്നെ ഫാമിലി നമ്മളെവിടെയെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ വേറെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് വേറെ അവരെ അവിടെ ആക്കിയിട്ട് പോയിട്ട് അതുപോലെയുള്ള മുറികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ യാത്ര കഴിയുന്നതും നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പം രാവിലെ പോകുന്നതാണ് നല്ലത് രാവിലെ പോകുന്ന സമയത്താകുമ്പോൾ മുൻപ് പിന്നെ അതിരാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ റോഡ് നല്ല സൗകര്യങ്ങളോടും കൂടി അധികം അധികം തിരക്കൊന്നുമുണ്ടാകില്ല അപ്പോൾ അതെല്ലാം നമ്മൾ വ്യക്തമായി ശ്രദ്ധിക്കണം അതെല്ലാം നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറെന്താ അതേപോലെ നമ്മൾ ബസ്സിൽ പോയി അവിടെയെത്തി ഒരു ബസ്റ്റാൻറ്റ് പോയി അവിടെ നമുക്ക് ഒരു സ്ഥലത്തേക്കു പോകണമെങ്കിൽ അവിടെ ടൈമിന് ബസ്സുണ്ടോയെന്ന് ശ്രദ്ധിക്കണം അതൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തത ഉണ്ടാകില്ല എല്ലാം ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തത വരും അതെല്ലാം ഒരു വ്യക്തതയോടെ കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്

പിന്നെ വേറെ വ്യക്തമായിട്ടൊന്നും നമുക്ക് മുന്നോട്ടു പോകാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ഒരേ മുന്നോട്ടു പോകാൻ വേണ്ടി പറ്റാതെ അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്

ഫാമിലിയായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ബസ്സിൽ മുന്നോട്ട് യാത്രയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതും പിന്നെ ക്രോസ് ചെയ്യുന്ന കുട്ടികൾ അവരെയെല്ലാം ശ്രദ്ധിക്കണം വണ്ടിയിൽ പോകുന്ന സമയത്ത് കഴിയുന്നതും നമ്മൾ ഒരു സൈഡിൽ ഒതുങ്ങിയിട്ട് വണ്ടി പോകുന്നതാണ് നല്ലത് കഴി അത് പിന്നെ കഴിയുന്നതും നമ്മൾ വണ്ടിയിലെ എണ്ണ എണ്ണ എണ്ണയെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം വ്യക്തമായി പോകാൻ അതു നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം അടുത്ത പട്ടണത്തിൽ പോകുമ്പോൾ അതും ഒരു സ്വകാര്യതയുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ ഒന്നിനും ബുദ്ധിമുട്ടാക്കാണ്ട് മുന്നോട്ടു പോകണമെന്നാണ് പറയാനുള്ളത്

കഴിയുന്നത്ര യാത്ര ചെയ്ത് പകുതി റസ്റ്റെടുത്തിട്ട് യാത്ര പോകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം നമ്മൾ കഴിയുന്നതും നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധാരണ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഇത് ഇപ്പോൾ അത് കണക്ക് നമ്മുടെ കഴിയുന്നതും റസ്റ്റെടുത്ത് പോകുക പിന്നെ അത് അങ്ങനെയൊക്കെ വെള്ളം വ്യക്തമായി വെള്ളം നമ്മുടെ കൈയിൽ വെക്കുന്നത് നമുക്ക് പട്ടണങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ അതുപോലെ ശുചിയായ ആഹാരം കഴിക്കുക ചൂടുള്ള വെള്ളം കുടിക്കുക മറ്റേ തണുത്ത പുറത്തുനിന്നുള്ള ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുകൂടി വ്യക്തത വേണം ഭക്ഷണം കഴിയുന്നതും ഹോട്ടലിനെ ആശ്രയിച്ചിട്ട് വേണം ഹോട്ടലിനെ സാധാരണ ഹോട്ടലിൽ പോയി കഴിച്ചോ അതും കൂടി വ്യക്തമായിട്ട് ഇതാക്കണം ചെയ്യണം അങ്ങനെയെല്ലാം കൂടി വ്യക്തം വ്യക്തമാക്കണം എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നതും വീട്ടിൽ നിന്നു തന്നെ ചൂടു വെള്ളം കൊണ്ടു പോകുക കഴിയുന്നതും ഒരു ദിവസത്തെ യാത്രയാണെങ്കിൽ നമ്മൾ ഇതില്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പാഴ്സൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് പിന്നെ ആണ് പുറത്തുന്നുള്ള ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അടിസ്ഥാന സൗകര്യത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതും കൂടി അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ മൊത്തത്തിൽ നമ്മൾ കഴിയുന്നതും ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ തന്നെ ആരോഗ്യത്തിനും എല്ലാം നല്ല ഇതുണ്ടാകും കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് യാത്ര ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത് ഒരു വ്യക്തതയും ഇല്ലാതെ എവിടെയും പോകാൻ പാടില്ല നമുക്ക് പോകുന്ന ലക്ഷ്യം അത് അത് ശരിയായിരിക്കണം നമ്മൾ കഴിയുന്നതും പട്ടണങ്ങളിൽ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണവും അടിസ്ഥാന സൗകര്യവും നോക്കി വേണം എല്ലാം ഹോട്ടലുകളോ മറ്റോ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിസ്ഥാന സൗകര്യം ഏറ്റവും നല്ല ഹോട്ടലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര അങ്ങനെ അങ്ങനെയുള്ള യാത്രകളാണ് നല്ലത് നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കഴിയുന്നതും നമ്മൾ ട്രെയിനെ ആശ്രയിക്കുകയാണെങ്കിൽ ട്രെയിനിൽ നിന്ന് അനാവശ്യമായ ഭക്ഷണപദാർത്ഥങ്ങളൊന്നും വാങ്ങി കഴിക്കാതെ നമ്മൾ ചൂടുവെള്ളം കൊണ്ടുപോകുന്ന അത് കഴിക്കുക അത് കണക്കിന് എല്ലാ ട്രെയിനും നമുക്ക് ആരോഗ്യത്തിന് ഉത ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണം കിട്ടില്ല അതേപോലെ തന്നെ നമുക്ക് ഒരു പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ അതും കൂടി ശ്രദ്ധിക്കണം ട്രെയിൻ യാത്രയാണെങ്കിൽ അതും കൂടെ നമ്മൾ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കഴിയുന്നതും എല്ലാം നമ്മൾ തന്നെ ആലോചിച്ച് ചെയ്തിട്ടാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കും ഏതു കാര്യത്തിനും നമ്മുടെ ആരോഗ്യമാണ് മെയിൻ മെയിനായി നോക്കേണ്ടത് ആടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മുട്ടിക്കാതെ വേണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് നമ്മൾ സ്വന്തം വണ്ടിയെടുത്തിട്ടാണോ ടൂ വീലറാണെങ്കിലും ഫോർ വീലറാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടും കണക്കിലാക്കി വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത്

അതുപോലെ നമുക്ക് നമ്മളെ പറ്റാവുന്ന ഇത് ചെയ്യാവുന്നത്ര ബാക്കി എല്ലാം പോകുന്ന അതുപോലെ ഉണ്ടാകും കഴിയുന്നതും നമ്മൾ വഴിയാത്രക്കാരെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വ്യക്തമായി വേണം ചെയ്യാൻ അത്തരം യാത്രകളായിരിക്കും നമുക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാകുന്നത് കഴിയുന്നതും പട്ടണങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുള്ള റൂം അതിന് ഉതകുന്ന അവിടെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിലോ പാർക്കിങ്ങിലോ ഒക്കെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള റൂംസ് നോക്കി വേണം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് നമ്മുടേതായിട്ട് ലക്ഷ്യത്തിലെത്താൻ കഴിയും ആരെയും ഒരു ബുദ്ധിമുട്ടാതെ തിരുന്നാൽ അത്രയും നല്ലത് കഴിയുന്നതും അത്രമാത്രം ചെയ്യുക ഇത്രമാത്രം കഴിയുന്നതും നമ്മൾ നമ്മുടേതായിട്ട് എല്ലാം തിരഞ്ഞെടുത്ത് നമ്മുടെ ഇഷ്ടത്തിനു പോലെ ചെയ്യുക ആരെയും അടിസ്ഥാന സൗകര്യത്തിന് പുറത്തെവിടെയും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് പോകുക കഴിയുന്നതും കഴിയുന്ന പോലെ ചെയ്യുക അത്രയേ അത്രയേ പറയാനുള്ളൂ പിന്നെ ഇതേപോലെ ലക്ഷ്യത്തിൽ സ്ഥാനത്തിലേക്കെത്തും അതുപോലെ അതുപോലെയാണ് ബാക്കി കാര്യങ്ങളും നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നീങ്ങുക അപ്പോൾ ഒരു ബുദ്ധിമുട്ടും വരുത്താത്ത രീതിയിൽ മുന്നോട്ടു പോകുക യാത്രാസൗകര്യങ്ങളും യാത്ര ചെയ്തുള്ള സ്ഥലത്തിലും ലോഡ്ജിൽ റൂമെടുക്കുമ്പോൾ മുറിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ശ്രദ്ധിച്ചു ചെയ്യുക ഇത്രമാത്രമാണ് ഇതിൻ്റെ മുന്നോടിയായി മുമ്പോട്ടു പോകാൻ കഴിയുന്ന എന്നുമാത്രം പറയുന്നു